തിരുവനന്തപുരം ജില്ലയിലെ പ്രധാന വിളകൾ റബ്ബർ മരച്ചീനി പച്ചക്കറികളിൽ ചീര പയർ വെണ്ട വഴുതന കത്തിരിക്ക അങ്ങനെ തുടങ്ങി കുറച്ച് പച്ചക്കറികൾ തക്കാളി പച്ചമുളക് അങ്ങനെയൊക്കെ ഉള്ള പച്ചക്കറികൾ പിന്നെ വെറ്റില കുരുമുളക് വാഴ അടയ്ക്ക ഇങ്ങനെയൊക്കെ ഉള്ള കുറച്ച് കാർഷിക ഇനങ്ങളാണ് പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത് പിന്നെ നെൽകൃഷി വളരെ കുറഞ്ഞ ഒരു താരതമ്യേന കുറവാണ് മറ്റുള്ള കൃഷി സ്ഥലങ്ങളെക്കാട്ടിലും നെൽപാടങ്ങളൊക്കെ വളരെ കുറവാണ് തിരുവനന്തപുരം ജില്ലയിൽ ഇതിൽ ഏറ്റവും കൂടുതൽ ആവശ്യകത ഉള്ളത് പ്രധാനമായിട്ടും മരച്ചീനിക്കും പച്ചക്കറികൾക്കും ഒക്കെ തന്നെയാണ് പിന്നെ റബ്ബർ എന്ന് പറയുന്നത് ഒരു ആദായമായിട്ട് കാണുന്നവരും കുറവല്ല വളരെ കൂടുതൽ പേരും റബ്ബറിനെ ആശ്രയിച്ച് ജീവിക്കുന്നവർ ഉണ്ട് അതൊരു ഉപജീവനമാർഗ്ഗമായിട്ട് റബ്ബർ കൃഷിയെ എടുത്തിട്ടുള്ളവരാണ് കൂടുതലും മറ്റുള്ള കൃഷിയേക്കാട്ടിലും ലാഭസമയം അതായത് സമയം ലാഭിക്കാം എന്നുള്ളതാണ് റബ്ബർ കൃഷികൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് റബ്ബർ കൃഷിയിലേക്ക് ഒട്ടുമിക്കയാളുകളും തിരിയാൻ കാരണവും സമയം അധികം വേണ്ട അധികം ശുശ്രൂഷ അധികം വേണ്ട അങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ വെച്ചിട്ട് പിന്നീട് പിന്നീട് ഓരോ വിളകൾക്കും അതിൻ്റെതായിട്ടുള്ള അനുകൂല കലാവാസ്ഥകളുണ്ടാകും അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ റബ്ബറിന് മഴക്കാലങ്ങളിൽ റബ്ബർ വെട്ടി പാൽ എടുക്കുന്നതിനൊന്നും സാധിക്കില്ല പിന്നെ ധാരാളം മഴയുള്ള സമയത്തും ഈ ചീരപോലെയുള്ള കൃഷിക്ക് ഒക്കെ കൃഷിക്ക് അനുയോജ്യമല്ല ചീരക്കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ളൊരു സമയമല്ല മഴക്കാലം എന്ന് പറയുമ്പോൾ പിന്നെ കുരുമുളകും വെറ്റിലയും ഒക്കെ അടയ്ക്ക എന്നൊക്കെ പറയുന്നത് നമുക്ക് ഏത് കാലാവസ്ഥയിലേയും കാലാവസ്ഥയിലും നമുക്ക് കൃഷിചെയ്യാവുന്നതേ ഉള്ളൂ വാഴയൊക്കെ ഏതൊരു കാലാവസ്ഥയിലും കൃഷിചെയ്യുന്ന ഒരു വസ്തുവാണ്